ആ ഞാൻ പ്രെഷ് കുക്ക് പ്രെഷർ കുക്കർ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഞാൻ തുറന്ന പാത്രങ്ങളിലും ഭക്ഷണം പാകം ചെയ്യാറുണ്ട് അപ്പോൾ നോക്കുകയാണ് വെച്ചാൽ എനിക്ക് തുറന്ന പാത്രങ്ങളിൽ പാചകം ചെയ്യാനാണ് ഒരുപാടിഷ്ടം പ്രഷർ കുക്കറിൽ ചെയ്യുന്ന സമയത്ത് നമുക്കതിൻ്റേതായ രീതിയിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് വേഗം വേവിക്കാനൊക്കെ ആണെങ്കിൽ പ്രഷർ കുക്കറിൽ പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ എളുപ്പമായി തീരും അങ്ങനെ നോക്കുമ്പോൾ പ്രഷർ കുക്കറ് ഒരു ഉപയോഗമുള്ളത് തന്നെയാണ് പക്ഷേ നമ്മൾ തുറന്ന പാത്രങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് അതിൽ പാകം ചെയ്യണ സമയത്ത് അതിന്റേതായ ടേസ്റ്റിലും ആ ഫുഡിൻ്റെ ടേസ്റ്റിനും ഒരുപാട് വ്യത്യാസം അനുഭവം ഉണ്ടാവാ ഉണ്ടാവാറുണ്ട് അപ്പോൾ എനിക്കങ്ങനെ പാചകം ചെയ്യണതാണ് ഇഷ്ടം അപ്പോൾ അതിന്റേതായ രീതിയിൽ ഇപ്പോൾ നമ്മൾ നന്നായിട്ട് ഈ ഒരു എല്ലാം വഴറ്റി എടുക്കണ സമയത്ത് അതിന്റേതായ രീതിയിലുള്ള ടേസ്റ്റും എല്ലാം ആ ഒരു ചേരുവകളും മസാലകളും എല്ലാം കൂടി ചേർന്നുള്ളൊരു ടേസ്റ്റ് നമുക്ക് വ്യത്യാസം അനുഭവപ്പെടും കുക്കറിൽ വയ്ക്കുന്ന സമയത്ത് നമുക്ക് സമയലാഭം ആണ് നമുക്ക് എങ്ങോട്ടെങ്കിലും നമുക്കത്യാവശ്യം പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ കുക്കറിൽ വെക്കണതാണു ഏറ്റവും നല്ലത് തന്നെയാണ് പക്ഷേ നമ്മളതിന്റേതായ രീതിയിൽ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും മറ്റ് മസാലകളെല്ലാം കൂട്ടിച്ചേർന്നിട്ട് അത്ര എല്ലാം കൂടി വേവിക്കുകയാണല്ലോ അപ്പോൾ അതിന്റേതായ രീതിയിൽ ടേസ്റ്റില് നല്ല വ്യത്യാസമുണ്ടാവാറുണ്ട്